ആ തീർച്ചയായും എല്ലാ ആളുകളും അവരുടെ തങ്ങളുടെ വേരുകളിലേക്കാണ് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവരും അവരുടെ പഴമയിലോട്ട് അല്ലെങ്കിൽ പഴയൊരു കാലം കാലത്തിലോട്ടാണ് എല്ലാവർക്കും പോകാൻ താത്പര്യം മാറുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനുഷ്യർ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ആയിക്കോട്ടെ സ്നേഹങ്ങൾ ആയിക്കോട്ടെ അവരെ ഇടയിലുള്ള വികാരങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാഴ്ചപ്പാടുകളും മറ്റും എല്ലാം മാറുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലോട്ട് എല്ലാവർക്കും പോകാൻ പൊതുവേ മലയാളികൾക്ക് ഒരുപാട് ആ ഒരു കാലഘട്ടത്തിലോട്ട് പിന്നീട് തിരിച്ച് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആയിക്കോട്ടെ എനിക്ക് ഒരുപാട് കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എല്ലാ സമയത്തും വീടുകളിൽ ആളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും അല്ല ഉത്സവങ്ങളിലെ സമയത്തൊക്കെ ആണ് വെച്ചാൽ വീടുകലിൽ ബന്ധുക്കൾ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വരാത്ത വീടുകളുണ്ട് പക്ഷെ എൻ്റെ ആ ഒരു കുട്ടികാലത്തെ വീടുകളിൽ എപ്പോഴും എന്താ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ ഉണ്ടാകുമായിരുന്നു വീട്ടിൽ മുത്തശ്ശി മുത്തശ്ശൻ ഞാൻ അനിയത്തി അമ്മ അച്ഛൻ അതുപോലെ ചെറിയച്ഛൻ ചെറിയമ്മ അതുപോലെ വല്യച്ഛൻ വല്യമ്മ അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ അംഗ സംഖ്യ ഒരുപാട് കൂടുതലായിരുന്നു ഇവരുടെ മക്കളും ഞങ്ങൾ എല്ലാവരും കളിച്ച് വളർന്നത് ഒരുമിച്ചായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അന്നത്തെ ആ ഒരു നമുക്ക് എന്താ പറയുക ഉള്ളിൽ കളങ്കവും ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്കമായ ഒരു ബാല്യകാലമായിരുന്നു എപ്പോഴും നമുക്ക് കൂടെ സംസാരിക്കാനും എപ്പോഴും ആളുണ്ടാകുമായിരുന്നു നമുക്ക് എന്താ പറയുക ആരെങ്കിലും ഒരാൾ നമ്മളെ എന്തെങ്കിലും എന്തെങ്കിലും ചീത്ത പറയുകയോ ചെയ്താൽ നമുക്ക് നമുക്ക് കാര്യങ്ങൾ പറയാൻ നമുക്ക് വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമ്മ എന്തെങ്കിലും വഴക്ക് പറയുകയാണ് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെറിയമ്മയും ചെറിയച്ഛനും വല്യമ്മ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് അല്ലേ നമ്മളെ കുറിച്ച് കരുതൽ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം എല്ലാവരും എന്താ പറയുക എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലോട്ട് തിരിച്ച് പോകാൻ അങ്ങനെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്